ആ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുണ്ട് അതുപോലെ തന്നെ ജനവിഭാഗങ്ങളുമുണ്ട് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷുമാണ് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വേറെ ചില ഭാഷകളായ ഉറുദു തമിഴ് മലയാളം ഹിന്ദി സംസ്കൃതം കന്നഡ തെലുങ്ക് ഒഡീസി കൊങ്ങിണി അങ്ങനെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുണ്ട് നാനാത്വത്തിൽ ഏകത്വമെന്ന ഒരു സവിശേഷതയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ പലവിധ ഭാഷകളിലും സംസാരിച്ച് അവരുടെ കഴിവുകൾ തെളിയിക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ രാജ്യത്തും ഒരുപാട് വൈവിധ്യമാർന്ന ഭാഷകളുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ഫ്രഞ്ച് അതേ മാതിരി അമേരിക്കൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് ഒരുപാട് റഷ്യൻ ഒരുപാട് ഭാഷകൾ നമ്മുടെ ലോകത്തുമുണ്ട് പിന്നെ നമ്മുടെ ഭാഷകളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ രണ്ടെണ്ണമെന്ന് പറയുന്നത് ഇന്തോ യൂറോപ്യനും അതെ പോലെ തന്നെ ഇന്തോ ആര്യൻ ഭാഷകളാണ് അതായത് അവയെ നമ്മൾ കൂടുതലായി പറയുന്നത് ഒറ്റയടിക്ക് പറയുന്ന പേരാണ് ദ്രാവിഡ ഭാഷകളെന്ന് നമ്മുടെ ഇന്ത്യയിൽ സംസാരിക്കുന്ന മറ്റ് ഭാഷകളെ നമ്മൾ പ്രധാനമായിട്ടും ആസ്ട്രോ ആസ്ട്രോ ഏഷ്യാറ്റിക്ക് ടിബറ്റ്യൻ ബർമ്മൻ ഭാഷാ കുടുംബങ്ങളിൽ പെട്ടതാണ് അതേപോലെ തന്നെ അവയിലൊന്നും പെടാത്ത കുറച്ച് ഭാഷകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് നമ്മുടെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദിയും ഇംഗ്ലീഷിനെയും പറ്റി പറയുകയാണെങ്കിൽ ദേവനാഗിരി ലിപിയിൽ ലിപിയിൽ നമ്മുടെ ഹിന്ദിയാണ് ദേവനാഗരി ലിപിയിൽ വരുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇംഗ്ലീഷ് ഒരു അനുബന്ധ ഔദ്യോഗിക ഭാഷയായിട്ടാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ മാതൃഭാഷകൾ പറയുകയാണെങ്കിൽ ഇതൊരു നൂറോളം വരും ഇപ്പം ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെൻസസിൻ്റെ സെൻസസിലെ ൻ്റെ പ്രകാരം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ട് ആണ് രണ്ടായിരത്തി ഒന്നിലെ കാനേഷു കുമാരി പ്രകാരം നമുക്ക് ഇരുപത്തി ഒൻപത് ഭാഷകൾ ഒരു ദശലക്ഷത്തിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നുണ്ട് ഇരുപത്തി ഒൻപത് ഭാഷകൾ ഒരു ലക്ഷം ദശലക്ഷം ആളുകൾ സംസാരിക്കുന്നുണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് അത്രയും വലുതാണ് അതുപോലെ തന്നെ നമുക്ക് നൂറ്റി ഇരുപത്തി രണ്ട് ഭാഷകൾ പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് സംസ്ഥാങ്ങളുടെയും തലസ്ഥാനങ്ങളും അവ രൂപീകരിച്ച വർഷവും ഔദ്യോഗിക ഭാഷകൾ പട്ടേന്ന് നോക്കാം അത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാവും ആന്ധ്രാപ്രദേശിൽ തെലുങ്കാണ് നമ്മൾ സംസാരിക്കുക അരുണാചൽ പ്രാദേശിൽ അവരുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ആസ്സാമിൽ അവരുടെ ഇംഗ്ലീഷ് അവരുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് അസ്സാമീസാണ് ബീഹാറുകാരാണെങ്കിൽ ഹിന്ദിയിലെ അവർ സംസാരിക്കൂ ഛത്തീസ്ഗണ്ഡും ഹിന്ദിയാണ് ഗോവ കൊങ്കിണിയാണ് ഗുജാത്ത് ഗുജറാത്തിലെ അവർ സംസാരിക്കൂ ഹരിയാനക്കാർ ഹിന്ദിയിലെ സംസാരിക്കൂ ഹിമാചൽ പ്രദേശിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ് അതൊക്കെ ഇരിക്കട്ടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ഓരോ ഔദ്യോഗിക ഭാഷകൾ സമൃദ്ധമാണ് നമ്മുടെ ഇന്ത്യൻ ഭാഷകൾ